ഇൻഡ്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലായിടത്തും ഒരുപോലെയല്ല ഇപ്പമൊക്കെ എൻ്റെ കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം കേരളത്തിലെ പോലെയല്ല എന്താ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ കേരളം കേരളത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അതായത് ജാതിമത ഭേതമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ നല്ല രീതിയില് നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തില് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റായ ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ എന്ത് നമ്മുടെ നാടും എൻ്റെ നന്മയ്ക്കും ഒരു വികസനം ഉണ്ടാവത്തുള്ളു നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഒരു വികസനം ഉണ്ടാവത്തുള്ളൂ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മള് മൊത്തം ഇതായി പോകും പിന്നെ

ചിലപ്പം എന്താ അവർക്ക് നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവിടെ താഴെ തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് അവിടെ വിദ്യാഭ്യാസം ചിലയിടങ്ങളിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലങ്ങനെയല്ല കേരളത്തില് എല്ലായിടത്തും ഒരുപോലെ അതായത് പാവപ്പെട്ടവർക്കാണേലും പണക്കാർക്കാണേലും എല്ലായിടത്തും ഉള്ളവർക്കാണെങ്കിലും നമുക്ക് ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന അവസ്ഥ എന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കേരളം എല്ലാത്തിലും പുരോഗ മന പു പുരൂ പുരോഗമനം ഉള്ളൊരു എന്താ ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്നു അതേ വേറെ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് പക്ഷെ അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അവരെ എങ്ങനെ എന്താ പറയുക എന്താ പറയുക താഴെ തട്ടില് അവരെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു മെൈൻഡിലായിരിക്കും വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എന്താ പറയുക അപ്പം ആ ഒരിതില് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ നമ്മുടെ സംസ്ഥാനം ആണെങ്കിൽ നല്ല രീതിക്ക് മെച്ചപ്പെടുത്തി നമ്മുടെ വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നാ ഉയർത്തിക്കൊണ്ട് വരികയാണ് എന്നാ എന്ത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താ എന്ന താഴെ തട്ടിലെ ആൾക്കാർക്ക് അതായത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഗവൺമെൻറ്റ് തന്നെ മുൻ കൈ എടുത്ത് അവര് അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും പിന്നെ പിന്നെ നമ്മുടെ കോളേ പിന്നെ ഒത്തിരി ഒത്തിരി അനാഥാലയങ്ങളിൽ ഒക്കെയാണെങ്കിലും അവിടെ ചെന്ന് നമുക്ക് എന്താ പറയുക അനാഥാലയങ്ങളിലും ചെന്ന് നമുക്ക് ഒത്തിരി അവരെ സഹായിക്കുകയും പാവപ്പെട്ട പിള്ളേർക്ക് പിന്നെ ഒത്തിരി ഒത്തിരി ജോലി സാധ്യതകളൊക്കെ നമ്മുടെ നാടുകളില് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവര് എന്നെ നമ്മുടെ സമൂഹത്തിനെ മുൻപോട്ട് കൊണ്ടുവരുവാൻ മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഒരു എന്താ പരിപാടി നമ്മുടെ ഗവൺമെൻറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ മുൻ മറ്റൊരു സംസ്ഥാനങ്ങളില് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇല്ലായിരിക്കാം കാരണം അവിടുത്തെ പാവപ്പെട്ട പിള്ളേര് എന്ത് എന്താ പറയുക അവരിപ്പഴും പഠിക്കാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ ഡൗട്ടാണ് അതായത് ഹിന്ദി ആണെങ്കിൽ പല പല ലാംഗ്വേജ്കള് നമ്മുടെ സംസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ മാതൃഭാഷ മലയാളം ആണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആക്കിയിട്ട് എന്താ പറയുക ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാക്കി പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ വരെ ഉണ്ട് എന്നിട്ട് പിന്നെ പക്ഷെ മറ്റേ മറ്റ് സംസ്ഥാനങ്ങൾലെന്താ പറയുക മറ്റ് സംസ്ഥാനങ്ങളില് നമ്മുടെ മാതൃഭാഷ അവർക്കത് ഹിന്ദിയാണെങ്കില് അവരെ ആദ്യം ഹിന്ദി പഠിപ്പിക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവര് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ആ ഒരു ഇതില് വരെ മാറി തുടങ്ങിയിരിക്കുകയാണ് പിന്നെ അപ്പം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇന്നത്തെ സമൂഹം നമ്മുടെ സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങള് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചു കൂടി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരിക കുറച്ചു കൂടി ഇംഗ്ലീഷും ഹിന്ദി എല്ലാ ഭാഷകളും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം എന്താ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ് അപ്പോൾ അത് എന്താ എല്ലാം കൊണ്ടും നമ്മള് പഠിപ്പിക്കുന്ന എല്ലാവരും തന്നെ ഒത്തിരി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ട് വരിക അങ്ങനെ എല്ലാ സ്ഥലങ്ങളും തന്നെ എല്ലാ ജില്ലകളിലും ഓരോരോ സ്കൂള് എല്ലാ വിദ്യാഭ്യാസങ്ങളും തന്നെ ഓരോരോ സ്കൂള് പിന്നെ എന്താ പറയുക ഓരോരോ മുന്നോട്ട് കൊണ്ട് വരിക അങ്ങനെ എല്ലാ സ്ഥലങ്ങളും തന്നെ എല്ലാ ജില്ലകളിലും ഓരോരോ സ്കൂള് എല്ലാ വിദ്യാഭ്യാസങ്ങളും തന്നെ ഓരോരോ സ്കൂള് പിന്നെ എന്താ പറയുക ഓരോരോ വിദ്യാഭ്യാസ

വിദ്യാഭ്യാസം പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് മെച്ചപ്പെട്ട കാര്യങ്ങള് തന്നെയാണ് പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസ രംഗത്ത് നമുക്കേറ്റവും വിലപ്പെട്ട വിദ്യാഭ്യാസ നമുക്കേറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും ഒരു സമൂഹത്തില് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതായത് ആദ്യ കാലങ്ങൾ എന്ന് ആൾക്കാർക്ക് തന്നെ വിദ്യാഭ്യ എന്ന വിദ്യ എന്തോ വിദ്യാഭ്യാസ ഇല്ലാത്തതു കൊണ്ട് അവര് ഒത്തിരിയത് ബുദ്ധിമുട്ടുകൾ അപ്പം അതിപ്പോൾ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമുക്ക് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ കുറച്ച് അത്ര ഒത്തിരി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് ആ ഒരു മൈൻഡില് നമ്മളെ നോക്കി അപ്പം അവരുടെ കഷ്ടപാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് പിന്നെ നമുക്ക് നമ്മുടെ രീതിക്ക് നമ്മളെ നല്ല രീതിയില് വളർത്താനുള്ള ഒരു മൈൻഡിലൊക്കെ ആയിരിക്കാം അവര് പിന്നീട് പഠിക്കാനോ ഒന്നിനും പോകാതിരുന്നതൊക്കെ ആയിരിക്കാം പക്ഷെ അപ്പം അതൊക്കെ കണ്ട് നമ്മള് ഇന്നത്തെ സമൂഹത്തില് നല്ലപോലെ വിദ്യ വിദ്യാഭ്യാസം എന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങള് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം അതായത് കേരളം എന്ന് വെച്ച സംസ്ഥാനം നല്ല രീതിക്ക് വളർന്ന് കൊണ്ടിരിക്കുകയാണ് ഒത്തിരി എന്താ ഒത്തിരി ഒത്തിരി മെച്ചപ്പെട്ട രീതിയിലേക്കാണ് കേരളം അതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റാണെങ്കിലും എന്താ പറയുക ഒത്തിരി സഹായങ്ങളും വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒത്തിരി സഹായങ്ങളും ഇതൊണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി രീതിയില് സഹ എന്താ സഹകരിക്കാനും അതിനും ഇതിനും ഒക്കെ പറ്റുന്ന ആ ഒരു ഇതായിരിക്കാനുമൊക്കെ